ഞാൻ ഓർഡർ ചെയ്ത ഐറ്റം തിരിച്ച് അയക്കാനുള്ള കാരണം എന്താച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്തതല്ല എനിക്ക് കിട്ടിയത് ഞാൻ പൊറോട്ട ചിക്കൻ ഫ്രൈ ലൈം ജ്യൂസാണ് ഓർഡർ ചെയ്തത് പക്ഷേ എനിക്ക് ഡെലിവറി ചെയ്തത് ചപ്പാത്തിയും ചിക്കൻ ഫ്രയാണ് ഡെലിവറി കിട്ടിയത് അപ്പം ഞാൻ ഷോപ്പിലേക്ക് വിളിച്ച് അവരുടെ ആ ഷോപ്പിലേക്ക് വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയില്ല അവർ കോൾ എടുക്കുന്നില്ല ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു കോളെടുക്കുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഞാനത് റിട്ടേൺ വിടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് ഇനിയിപ്പം അത് ഇല്ലാതിരുന്നതാണോ ഐറ്റം ഇല്ലാതിരുന്നിട്ട് ഇനി അവർ ഓർഡർ എടുത്തതാണോ അതോ ഇനി ഡെലിവറി ചെയ്ത സമയത്ത് പായ്ക്ക് ചെയ്ത സമയത്ത് എന്തെങ്കിലും റോങ്ങായിട്ട് മിസ്റ്റേക്ക് പറ്റിയതാണോയെന്ന് അറിയത്തില്ല തന്നെയല്ല സാധനം ഫ്രഷായിരുന്നില്ല തണുത്തിട്ടാണ് ഉണ്ടായിരുന്ന ചപ്പാത്തിയൊക്കെ ഭയങ്കരമായിട്ട് തണുത്തിട്ടാണ് ഉണ്ടായിരുന്നത് തന്നെയല്ല കറിയാണെങ്കിലും എന്താണ് ക്വാണ്ടിറ്റിയും കുറവായിരുന്നു വളരെ കുറവായിരുന്നു ഇപ്പം നമ്മളെന്തെങ്കിലും റോങ് പറ്റിയതാണെങ്കിൽ നമുക്ക് ഉപയോഗിച്ചേക്കാമെന്നുള്ള ഒരിതിലേക്ക് വന്നപ്പോഴത്തേക്കിനും അത് ക്വാ നമുക്കതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള സാധനം ആയിരുന്നില്ല അവർ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് റോങ്ങായിട്ട് പറ്റിയിരുന്നെങ്കിലും നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു പക്ഷേ അത് ഇങ്ങനെ മോശമായിട്ടുള്ള ഫുഡും കൂടി ആയിരുന്നു അതുകൊണ്ടാണ് പിന്നെ അത് റിട്ടേൺ അയക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം അപ്പം എന്നെ അവർ വിളിച്ചുമില്ല അപ്പം പിന്നെ അത് തി തിരിച്ച് അയക്കാൻ വേണ്ടി തീരുമാനിച്ചു